വളരെ നന്നായി ആസ്വദിക്കുന്നു കോളേജ് ലൈഫും മറ്റ് സ്കൂൾ ലൈഫ്നേക്കാളും അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം കോളേജിൽനിന്നും എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു കറേജ് ആയാലും എന്ത് എന്തൊരു അനുഭവങ്ങളായാലും അത് അതി മനോഹരമായിട്ടാണ് എനിക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കോളേജിൽനിന്ന് എനിക്ക് ഏറ്റവും കൂടുതല് എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം കിട്ടുന്ന ഓരോ നിമിഷവും അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രണ്ട്ഷിപ് എന്നതിൻ്റെ ഏറ്റവും കൂടുതൽ മൂല്യമെന്നത് ഞാനറിഞ്ഞത് കോളജ് ലൈഫിൽ നിന്നാണ് ഓരോ സമയത്ത് അവര് തമ്മിൽ തമ്മിൽ തരുന്ന സപ്പോർട്ടും അവര് തരുന്നൊരു ഹാപ്പിനെസ്സും അത് വേറൊരു ടൈമിലും എനിക്ക് ഇത് വരെ കിട്ടിയിട്ടില്ല കോളജ് എന്ന് പറയുമ്പോൾ കോളജിലേക്ക് കയറി വരാൻ തന്നെ തോന്നുന്നത് അവർ ഉള്ളതുകൊണ്ടാണ് അവരില്ലെങ്കിൽ ഇവിടെ കയറാൻ പോലും എനിക്ക് തോന്നില്ല കാരണം അത്രയ്ക്കധികം ഇഷ്ടമാണ് എനിക്ക് കോളേജില് വരാൻ പല നിമിഷങ്ങളും പല കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ചെറിയൊരു വിഷമമൊക്കെ വരുവെങ്കിലും പക്ഷേ കോളേജിൽ കോളജ് ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ തമാശകളായാലും പഠിക്കാനുള്ളതിൻ്റെ തിരക്കായാലും എന്തായാലും അത് നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റി കാരണം ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള വൈബായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങള് തല്ല് കൂട്ടും വഴക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗ്യാങ്ങായിട്ട് തന്നെ മാറി പോന്നു എന്നൊക്കെ പറയാം പല പ്രശ്നങ്ങളും ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടാണ് തർജം കടന്ന് വന്നത് പല പ്രശ്നങ്ങളും ഫെയ്സ് ചെയ്യാനും ഏതൊരു കാര്യത്തിലും ഭയമില്ലാണ്ട് നേരിടാനും ഉള്ളൊരു സ്ട്രെങ്ന്ത് എനിക്ക് കിട്ടിയത് ഫ്രണ്ട്ഷിപ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഫ്രണ്ട്സ് മേലുപരി കോളേജ് ലൈഫിൽ പറയുകയാണെങ്കിൽ ടീച്ചേർസ് ടീച്ചേർസ് രസമാണ് ഓരോ ടീച്ചേഴ്സിനും ഓരോ സ്വഭാവമാണ് ചിലവര് ചീത്ത പറയുന്നവരുണ്ടാകും ചിലരൊരു നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ളവരുണ്ടാകും ചിലരൊരു ഞങ്ങളുടെ കളിതമാശകള് കളിതമാശകളായിട്ട് കാണുന്നവരുണ്ടാകും രസമാണ് കോളേജ് എന്ന് പറയുന്നത് കോളേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ എന്തൊരു എന്തൊരു പ്രത്യേക പോസിറ്റിവ് വൈബ് നമുക്ക് കിട്ടുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ വളരെയധികം നന്നായിട്ട് ആസ്വദിക്കാൻ സാധിച്ചിരുന്ന ഒന്നാണ് കോളജ് ലൈഫ് കോളജ് ലൈഫില് വേറൊരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ടുതന്നെ കോളജ് ലൈഫ് അടിപൊളിയാണ്